അതാണ് ആ ട്രാഫിക്കിൻ്റെ ആ ഇതിലുള്ള ഒരു പരിഹാരം പൂവർ റോഡിനുള്ളത് പരിഹാരം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എന്താണ് ചെയ്യുക അതിൻ്റെ സർക്കാരിന് അതിൽ നല്ല രീതിയിൽ വിലയിരുത്തുക എന്നുള്ളതാണ് അതിൽ അഴിമതി നടത്തുന്നത് തൊട്ട് സർക്കാരിനെ തടയുക എന്നുള്ളതാകുന്നു പിന്നെ

പാർക്കിംഗ് സ്പേസിൻ്റെ കുറവ് അത് വലിയ ഒരു പ്രശ്നമാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വലിയ ഒരു ഷോപ്പിംഗ് മാൾക്ക് സീസൺ്റെ ടൈമിലൊക്കെ പോകുക ആണെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് മിതമായിട്ടുള്ള

അതുപോലെ തന്നെ പെട്രോൾ വില അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമുക്ക് വന്നത് പെട്രോളിൻ്റെ യും ഡീസസിലിൻ്റെ ഒക്കെ വിലയുടെ കുതിപ്പ്

ലൊക്കേഷൻ നോക്കിയിട്ട് നല്ല റോഡ് തിരഞ്ഞെടുത്ത് കൊണ്ട് നമ്മൾ പോകുക എന്നുള്ളതാണ് ഇതിന് നമ്മൾ നേരിടുന്ന